എനിക്കറിയാവുന്ന മൊത്തം വ്യാപാര വിപണികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പ പലചരക്ക് കടകളുണ്ട് പച്ചക്കറി മാർക പച്ചക്കറികൾ വിൽക്കുന്ന കടകളുണ്ട് അതുപോലെ ചായ കടകളുണ്ട് പിന്നെ ഡ്രസ്സുകൾ വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകളുണ്ട് പിന്നെ ചെറിയ ടോയിസ് വിൽക്കുന്ന കടകൾ ഇങ്ങനെ ഒരുപാട് വിപണിയിൽ മൊത്ത വ്യാപാരങ്ങൾ വിപണി ഇതുപോലുള്ള പല തരത്തിലുള്ള ഇതുപോലുള്ള കടകളുണ്ട് അപ്പോൾ ഈ ഈയിടെയായിട്ട് പലചരക്കുകൾ അല്ലെങ്കിൽ പച്ചക്കറികളുടെ വിലയിൽ നല്ല മറ്റമാണ് ഉണ്ടായിട്ട് വന്നത് ആദ്യം ആദ്യത്തെ ആദ്യ കാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് പച്ചക്കറികൾക്കൊക്കെ തീ പിടിപ്പിക്കുന്ന വിലയാണ് ഇപ്പം തക്കാളി എന്ന് പറയുമ്പോൾ നൂറിൻ്റെ മുകളിലൊക്കെ പോയ ചില സമയങ്ങളുണ്ട് എങ്കിൽ ചില സമയങ്ങളിൽ അവർ മൂന്നു രൂപയായിട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ വലിയ ഹൈപ്പർ മാർക്ക ഷോ ഹൈപ്പർ മാർക്ക് അല്ലെങ്കിൽ ചെറിയ മാർക്കറ്റുകളിലൊക്കെ പിന്നെ ഓഫറിലായിട്ട് വെള്ളരി അതുപോലെയുള്ള തക്കാളി വഴുതന അതൊക്കെ ഓഫറിൽ മൂന്നു രൂപക്കും അഞ്ചു രൂപക്കുമായിട്ട് കൊടുക്കുന്നുണ്ട് അത് ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും അപ്പോൾ പിന്നെ ഓൺലൈൻ ഷോപ്പിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അതിൻ്റെ നല്ല വശം എന്നു പറയുന്നത് നമ്മൾ ഓൺലൈനിലൂടെ ഷോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പം നമ്മൾ പൈസ കൊടുത്തു വാങ്ങുന്ന ഇപ്പം നേരിട്ട് വാങ്ങുന്ന നമുക്കതിൻ്റെ ക്വളിറ്റിയും അത് പിടിച്ചു നോക്കിയിട്ട് ഏത് ഏത് തരത്തിലുള്ളതാണ് അതിൻ്റെ ക്വാളിറ്റി എന്താണ് അതൊക്കെ ചെക്കെയ്താൽ ഇവിടെയാണെങ്കിൽ പൈസ കൊടുത്തു വാങ്ങുമ്പം നമുക്ക് കയ്യിൽ കിട്ടിയാൽ മാത്രമേ അത് എന്ത് തരം ക്വളിറ്റി ആണെന്ന് പറയാൻ പറ്റുകയുള്ളൂ പിന്നെ അതിൻ്റെ നല്ലൊരു വശം എന്നു പറയുന്നത് നമുക്ക് കടകളിൽ പോയി വാങ്ങണ്ട നമ്മുടെ സമയം ചില ചിലവാക്കേണ്ട ക ഇതായിട്ട് വരുന്നില്ല നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ഫോണിലൂടെ പിന്നെ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് ടൈം പോകാതെ തന്നെ നമുക്ക് നമ്മുടെ കൈകളിലെത്തും പിന്നെ ചില സമയങ്ങളിൽ നല്ല സാധനങ്ങളും കിട്ടും ചില സമയങ്ങളിലത് മോശം സാധനങ്ങളും കിട്ടും